ഞാൻ ഡാൻസ് റീല് ഷോർട്സ് ഒക്കെ കാണാറുണ്ട് പക്ഷേ ഒത്തിരിയൊന്നും കാണാറില്ല പക്ഷേ കാണുന്നതൊക്കെ ഒരുപാട് ഇഷ്ടം തന്നെയാണ് പിന്നെ റീൽസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് കൂടുതൽ ഇച്ചിരികൂടെ ഇഷ്ടം തോന്നിയേക്കുന്നത് വിനു ശീതൾ എന്നവരുടെ റീൽസ് ഒക്കെയാണ് പിന്നെ ഡാൻസറിന് കാണാറുണ്ട് സോഷ്യൽ മീഡിയയിലെ നിങ്ങളുടെ പ്രിയപ്പെട്ട നർത്തകരാരാണെന്ന് ചോദിച്ചാൽ എനിക്ക് കുറച്ചുകൂടെ ആപ്റ്റബിൾ ആയിട്ട് ഇഷ്ടം തോന്നിയിരിക്കുന്നത് മഞ്ചു വാര്യർ അതുപോലെ മറ്റേ ശോഭന ഇവരൊക്കെയാണ് ഇവരെയൊക്കെ കുറച്ചുകൂടെ ഇഷ്ടമാണ് പിന്നെ നല്ല പ്രൊഫഷണൽ ഡാൻസേഴ്സിനൊക്കെ ഇഷ്ടമാണ് പിന്നെ എൻ്റെ ചേച്ചിമാരൊക്കെ നല്ല ഡാൻസ്കാരാണ് അപ്പം അവരുടെയൊക്കെയാണ് എനിക്ക് കൂടുതലിഷ്ടം ഡാൻസിന് നല്ല രീതിയിൽ ഞാൻ മുമ്പോട്ട് പ്രോത്സാഹിപ്പിക്കുകയും അതുപോലെ കാണുകയൊക്കെ ചെയ്യുന്ന ആളാണ് എനിക്ക് പറ്റുന്ന കിട്ടുന്ന സാഹചര്യങ്ങളിൽ പറ്റുന്ന അവസരങ്ങളിലൊക്കെ ഞാനത് മാക്സിമം യൂസ് ചെയ്യാറുണ്ട് പിന്നെ ഡാൻസ് സോഷ്യൽ മീഡിയയിൽ കാണുമോ എന്ന് ചോദിച്ചാൽ ഒരുപാട് അങ്ങനെ കാണാറില്ല അല്ലാതെ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാസ്രങ്ങളിലൊക്കെ ഒരു മാക്സിമം ഒരു ലെവല് വിട്ടൊന്നും ചെയ്യാറില്ല പക്ഷേ മാക്സിമം ഞാൻ ഇത് കാണാറുണ്ട് പിന്നെ നേരത്തെയൊക്കെയാണെങ്കിൽ ഇച്ചിരികൂടെ ഡാൻസ് പ്രോഗ്രാംസ് ഒക്കെ കാണുമായിരുന്നു അത് യൂട്യൂബിലും ഫേയ്സ്ബുക്കിലും ഫേയ്സ്ബുക്കിൽ അത്രയില്ല യൂട്യൂബിലും അല്ലാതെയൊക്കെ അങ്ങനെ കാണുമായിരുന്നു പിന്നെ അല്ലാതെ ഓഫ്ലൈൻ ആയിട്ട് കാണുന്നതായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് വന്നുകഴിഞ്ഞാൽ അവിടെയൊക്കെ കാണാം സ്കൂൾ ആനിവേഴ്സറീസ് അങ്ങനത്തെ അങ്ങനെ കുറേ കാര്യങ്ങൾ കാണാനൊക്കെയായിരുന്നു എനിക്കിഷ്ടം അല്ലാത്ത പക്ഷേ ഞാൻ അതിന് ശേഷം ഞാൻ വേറെ ലൈഫിലേക്ക് പോന്നതുകൊണ്ട് എനിക്കത്രയും ആപ്റ്റബിൾ ആയിട്ട് ഫോണ് അത്ര യൂസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല പിന്നെ അതുകൊണ്ട് തന്നെ അങ്ങനെത്തെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നതുകൊണ്ട് ഇങ്ങനെ ഒരുപാട് റീൽസ് അങ്ങനെത്തെ ഒന്നും ഞാൻ അധികം കണ്ടിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം പിന്നെ ഇപ്പോൾ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളതുകൊണ്ട് കുറച്ചൊക്കെ കാണുന്നു എന്ന് മാത്രം ഉള്ളൂ അല്ലാതെ ഒരുപാട് ഞാനങ്ങനെ യൂസ് ചെയ്തിട്ടില്ല പക്ഷേ ഡാൻസ് റീല് ഷോർട്സ് ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണ് ഞാനും അതിനെ തള്ളി മാറ്റി നിർത്തുക അങ്ങനൊന്നും ചെയ്തിട്ടില്ല പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ പറ്റുന്ന പോലെ ആളുകൾ ഇതൊക്കെ ചെയ്തിടണം തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നതും പറയാൻ ഉദ്ദേശിക്കുന്നതും അല്ലാതെ മാറ്റി വിടാനൊന്നും ഞാനുദ്ദേശിച്ചിട്ടില്ല മാറ്റി വിടുന്നത് സക്സസ്സ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇതൊക്കെ ഓരോ സ്കില്ലുകളാണ് ഈ സ്കില്ലിനെ മുമ്പോട്ട് കൊണ്ടുപോയി നല്ല രീതി പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് മെയിന് ആയിട്ടും ഞാൻ ചെയ്യുന്നത് അല്ലാത്ത പക്ഷം എനിക്ക് വേറൊരു കാര്യവും ചെയ്യാനായിട്ട് സാധിക്കില്ല പിന്നെ കിട്ടുന്ന അവസരങ്ങളൊക്ക ഞാനും മാക്സിമം നന്നായിട്ട് ഡാൻസ് ഒക്കെ ചെയ്യാറുണ്ട് അപ്പം അതുകൊണ്ട് എനിക്ക് ഡാൻസിങ് കൂടുതൽ ഇഷ്ടവുമാണ് പിന്നെ റീലുകളിൽ കാണുന്നതൊക്കെ ഞാൻ കൂടുതലും ഇവിടെ കോളേജിലൊക്കെ പഠിക്കുമ്പോഴ് ഈ കോളേജിൽ നടക്കുന്ന ഓരോ പ്രോഗ്രാംസിലൊക്കെയാണ് ഞാൻ കൂടുതലും കുട്ടികളിങ്ങനെ റീൽസ് ഒക്കെ കളിച്ച് കാണുന്നതും ഒക്കെ അത് സ്റ്റേജിലും അല്ലാതെയൊക്കെയായിട്ട് അങ്ങനെയാണ് കണ്ടിട്ടുള്ളത് അല്ലാതെ വേറെ റീല് കൂടുതലങ്ങനെ ഫോണില് കണ്ടുകൊണ്ടിരിക്കുക അങ്ങനൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഒന്ന് രണ്ട് പ്രാവശ്യങ്ങളിലല്ലാതെ ഒരുപാടൊന്നും ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയിട്ടുമില്ല ഞാനങ്ങനെ ചെയ്തിട്ടുമില്ല പിന്നെ മാക്സിമം ചെയ്താലും കുറച്ചുകൂടെ ചെയ്യുന്നത് ഫിലിംസിലൊക്കെ ഡാൻസുകളൊക്കെ കാണുക അങ്ങനെയൊക്കെയാണ് കുറച്ചുകൂടെ ഞാൻ ചെയ്തിട്ടുള്ളത് വേറെ ഒന്നും ഞാൻ അങ്ങനെ ഒരുപാട് ഫോക്കസ് ചെയ്തിട്ടില്ല പിന്നെ റീലും ഷോർട്സ് ഒക്കെ കാണുന്നത് നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇതൊക്കെ സ്കില്ല് ആയതുകൊണ്ട് തന്നെ ഈ സ്കില്ലിനെ പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് നമ്മൾ തന്നെ പ്രോത്സാഹിപ്പിക്കാനുള്ളല്ലോ അപ്പം അതുകൊണ്ട് ആ രീതിക്ക് കണ്ടുകൊണ്ട് ഞാൻ ഇതിനെയെല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്